ഇന്നത്തെ കാലത്ത് പൊതുവേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെ തുടങ്ങിയ ആപ്പുകളാണ് പിന്നെ യൂട്യൂബ് അങ്ങനെ പറഞ്ഞ അപ്പുകളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ ഇപ്പം ചില നമ്മുടെ ഫ്രീ ടൈമുകൾ എല്ലാം എന്താണ് എല്ലാവരും ഫ്രീ ടൈം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോൺ വെച്ച് റീൽസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഷോർട്സ് എന്തെങ്കിലും കണ്ട് ഇരിക്കാം അല്ലേ ഷോർട് ഫിലിം അങ്ങനെ എന്തെങ്കിലും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ യുട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെയാണ് കാരണം ആൾക്കാർ ആ രസിപ്പിക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഈ പറയുന്നത് എല്ലാം ഈ പറയുന്ന ആപ്പുകളെ ഇപ്പം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവും ഉണ്ട് ഒരു നെഗറ്റീവും ഉണ്ട് ഇപ്പം ഈ പറഞ്ഞ മൊബൈൽ ഫോണുകൾക്ക് ആണെങ്കിലും അതിന് ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് ഒരുപാട് ചീത്ത കാര്യങ്ങളുമുണ്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഒരു ദൂരമുള്ള ആൾക്കാരെ പോലും നമുക്ക് അടുത്ത് നിന്ന് കാണാം അതായത് നമുക്ക് അവരെ ഒറ്റ ഒരു ഒരു വിരൽകൊണ്ടു തന്നെ അവരെ കാണാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് അതായത് നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ എത്ര ദൂരത്തുള്ള ഒരു ആളെയാണെങ്കിലും നമുക്ക് വീഡിയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്ത് ആണെങ്കിലും കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ തോന്നിയാൽ വിളിക്കാനും പണ്ടത്തെ പോലെ കത്ത് എഴുതി അയക്കോക്കെ ചെയ്താൽ അത് എത്തുമ്പോൾ ഒരുപാട് നാൾ എടുക്കുമായിരുന്നു പക്ഷെ ഇന്ന് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പം ഒരു മിനിറ്റ് കൊണ്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു മെസ്സേജ് സെൻഡ് ആകാൻ അപ്പം നമുക്ക് എന്ന് പറയുന്നത് എല്ലാം ഭയങ്കര ആധുനികമായിട്ട് പുതിയ തലമുറക്ക് വന്നിരിക്കുന്ന ഒരു കാലമാണ് പക്ഷെ പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് നെഗറ്റീവ് സൈഡും ഉണ്ട് ഒരുപാട് മോശമായ കാര്യങ്ങളുമുണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം ഇപ്പോൾ നശിച്ച് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്രയൊക്കെ മൊബൈൽ ഫോൺ നല്ല ഉപയോഗ ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞാലും അതിന് ഒരു സൈഡിൽ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് കാരണം എന്താച്ചാൽ ഇപ്പം ഇപ്പം ഒരുപാട് ചതിക്കുഴികൾ അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ഇപ്പം പറയുകയാണേൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു മെസ്സേജ് ഒരു ചെക്കനെ ഇഷ്ടപ്പെട്ട് നമ്മളെയൊക്കെ ചതിക്കാൻ അവരിങ്ങനെ ചതിക്കണം എന്നൊരു മോട്ടീവായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ചതിച്ചിട്ട് പോകും നമ്മൾ അതിൽ ബ്ലൈന്റായിട്ട് വിശ്വസിച്ച് പോകുന്നവരും ഉണ്ട് അവർ ഫേക്ക് ആയിട്ട് കാണിക്കുന്ന സ്നേഹം എല്ലാം നമ്മൾ ഇഷ്ടത്തിനുമാണ് അവരുടെ ഇഷ്ടം കൊണ്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചതിക്കുഴിയിൽ വീണു പോയി നമ്മുടെ ലൈഫ് തന്നെ പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ പോലും ചെയ്യാതെ ഇപ്പം എന്താണ് പറയുക നമ്മുടെ നമ്മൾ ഫോട്ടോ ഒക്കെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ മോർഫ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാലും അതിന് ഒരുപാട് നെഗറ്റീവ് സൈഡും ഉണ്ട് ഇപ്പം ഞാൻ ചെയ് ഞാനും എൻ്റെ ഒരു ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിയാണ് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് നമുക്ക് എല്ലാം ചെയ്യാം മൊബൈൽ ഫോൺ വെച്ച് എന്തും അറിയാം ന്യൂസ് കാണാം നമ്മുടെ നമ്മുടെ ഫ്രീ ടൈം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാം എല്ലാം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വിളിക്കണം എന്ന് തോന്നിയാൽ അപ്പോൾ വിളിക്കാം ആരോടെങ്കിലും സംസാരിക്കണം എങ്കിൽ സംസാരിക്കാം വീഡിയോ കോൾ ചെയ്യണം എങ്കിൽ വീഡിയോ കോൾ ചെയ്യാം എത്ര ദൂരെയുള്ള ആളെയാണെങ്കിൽ പോലും ഒന്ന് കാണണം എന്ന് തോന്നുമ്പോൾ വീഡിയോ കോൾ ചെയ്തെങ്കിലും കാണാം അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മോശമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് എന്താച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പൈസ തട്ടിയെടുക്കാനും ഈ പറഞ്ഞതു പോലെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ മോർഫ് ചെയ്ത് നമ്മളെ നമ്മളെ മോശകരമായി ചിത്രീകരിക്കാനും അങ്ങനെ ഒരുപാട് നോക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതെല്ലാമാണ് എനിക്ക് മൊബൈൽ ഫോണിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്